ഇപ്പോൾ ബൈക്കിങ് എനിക്കത്യാവശ്യം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ എന്നു പറയുന്ന വെഹിക്കിളാണ് അതാണ് വീട്ടിൽ ഞാനിപ്പോൾ എൻ്റെേതായിട്ടൊരു ബൈക്കായിട്ട് പ്രിഫർ ചെയ്യുന്നത് അതിപ്പോൾ എടുത്തതിനുശേഷം തന്നെ എനിക്ക് ഹിമാലയൻ ക്ലബിൽ നിന്ന് പറയുന്ന ഒരു ക്ലബിൽ ജോയിൻ ചെയ്യാനൊക്കെ പറ്റിയിരുന്നു അപ്പോൾ അതിൽ കൂടുതൽ എന്താ പറയുക ഫ്രണ്ട്സിനൊപ്പം റൈഡിനു പോകുന്നതാണ് എനിക്ക് കംഫേർട്ടായിയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഓഫ്റോഡ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നല്ല രീതിയ്ക്കുതന്നെ നമ്മൾ റൈഡും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എന്താ പറയുക ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഓഫ്റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എവിടെയെങ്കിലും മറിഞ്ഞു വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഗാങ്ങ് അതായത് ഫ്രണ്ട്സും കാര്യങ്ങളും റൈഡേഴ്സൊക്ക ഉള്ളതുകൊണ്ടുതന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മൾക്കുവേണ്ട ഹെൽപ്പ് ചെയ്തു തരാനൊക്കെ അവർക്ക് നല്ല രീതിയ്ക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അവരതിനനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുതരും പിന്നെ സപ്പോസ് വീഴുകയോ കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ അന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിലും കൂടുതൽ എന്താ പറയുക നമ്മുടെ ക്ലബിലുള്ള റെഡേഴ്സിൻ്റെകൂടെ പോകുന്നത് തന്നെയാണ് താല്പര്യം അതിൽ ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അപ്പോൾ അവരൊക്കെ നല്ല റൈഡേഴ്സ് തന്നെയാണ് അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ കൂടെയൊക്കെ റൈഡ് കോഡിനേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് എന്തായാലും ഗാങ്ങായിട്ട് പോകുന്നത് തന്നെയാണ് കൂടുതലും ഇഷ്ടം